എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട പുസ്തകമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് അതില് പതിനെട്ട് അദ്ധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഭഗവത്ഗീത ഗീതോ ഉപനിഷത്ത് എന്നും പറയപ്പെടുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണനാണ് ഗീതോ ഉപദേശകൻ ഭഗവത്ഗീതയുടെ ഓരോ താളിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് പറയുന്നുണ്ട് ഭഗവാനെന്ന വാക്കുകൊണ്ട് ചിലപ്പോഴെല്ലാം ശക്തനായ ഒരു വ്യക്തിയെ വ്യക്തിയേയോ ദേവനേയോ പരാമർശിക്കാം ഇവിടെ കൃഷ്ണനെ ഒരു മഹത്വ്യക്തിയായി തന്നെയാണ് ഭഗവത് ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നത് യുദ്ധത്തിന് തയ്യാറായവാതെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഇരിക്കുന്ന അർജുനനെ യുദ്ധത്തിന് തയാറെടുപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഭഗവത് ഭാരത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പ്രാരാബ്ധത്തിൽ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് യുദ്ധത്തിന് സന്നദ്ധനാക്കുന്നു ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാനാവശ്യപ്പെടുന്നില്ല പകരം നീ നിനക്ക് ഉചിതമായ കാര്യങ്ങളേ ചെയ്യാവൂ നീ ചിന്തിച്ചു ശരിയേത് തെറ്റേത് എന്ന് സ്വയം വിശകലനം ചെയ്തിട്ട് വേണം യുദ്ധം ചെയ്യാൻ അർജുനൻ കൃഷ്ണന്റെ ഒരു സ്നേഹിതനായതുകൊണ്ട് വെറും മുഖസ്തുതിയായി ഇതൊക്കെപ്പറഞ്ഞതാണ് എന്ന് ചിന്തിക്കാം എന്നാൽ ഭഗവത്ഗീത പഠിക്കുന്നതുകൊണ്ട് നാം നമ്മുടെ ആത്മാവിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ശരി അർജുനൻ യുദ്ധക്കളത്തിൽ വച്ചു കൊല്ലുന്നത് കേവലം ശരീരത്തെ മാത്രം ആണ് ആർക്കും ആത്മാവിനെ കൊല്ലാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ഒരു ശരീരം എന്നു എന്നുപറയുന്നത് പുതിയ പഴയ വസ്ത്രത്തെ ഉപേക്ഷിച്ച് പുതിയ ഒരു വസ്ത്രത്തെ സ്വീകരിക്കുന്ന രീതിയിലാണ് ഭഗവാൻ ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ജീർണ്ണിച്ച വസ്ത്രത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു ആ അതിന് മരണം എന്നും പുതിയ വസ്തുക്കളെ പുതിയ വസ്ത്രത്തെ നമ്മൾ സ്വീകരിക്കുന്നു അതിന് ജനനമായിട്ടും ചിത്രീകരിക്കുന്നു അർജുനൻന്റെ പ്രസ്താവനകൾ അനുസരിച്ച് ഒരു ഭഗവത്ഗീത പഠിതാവ് കൃഷ്ണനെ ത്വാദ്വികമായെങ്കിലും പരമ ദിവ്യോത്തമ പരുഷനായി അംഗീകരിച്ചെ മതിയാവൂ ഭഗവത്ഗീത പരമ ദിവ്യോത്തമ പുരുഷനിൽ നിന്നും കേട്ടറിഞ്ഞശേഷം അർജുനൻ കൃഷ്ണനെ പരബ്രഹ്മമായി അംഗീകരിക്കുന്നു എല്ലാ ജീവസത്തുക്കളും ബ്രഹ്മം തന്നെ എന്നാൽ പരമമായ ജീവവസ്തു അതായത് പരമ ദിവ്യോത്തമ പുരുഷനാണ് പരബ്രഹ്മം പരമദാമം എന്നാൽ എല്ലാത്തിന്റെയും പരമമായ വിശ്രമസ്ഥാനം തന്നെയാണ് പവിത്രമെന്നാൽ പരിശുദ്ധൻ അതായത് ബൗദ്ധികമാലിന്യങ്ങളാൽ കളങ്കപ്പെടാത്തവൻ എന്നർത്ഥം ഭഗവത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണ പുരുഷൻ തന്നെയാണ് അതായത് ഈശ്വരനായിത്തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്നത് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അർജുനൻ ഭഗവത്ഗീതയിലുള്ള അഞ്ച് അടിസ്ഥാന തത്ത്വങ്ങളാണ് പരമപുരുഷൻ കൃഷ്ണൻ ബ്രഹ്മം പരമനിയന്താവ് പരാത് പരമാത്മാവ് ഇങ്ങനെ പറയുന്നു ബൗദ്ധിക പ്രകൃതി മൂന്ന് ഗുണങ്ങൾ അടങ്ങിയതാണ് സത്വ രജ തമോ ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളെക്കുറിച്ചും ഭഗവത്ഗീതയിൽ വ്യക്തമായും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുമാണ് ശ്രീകൃഷ്ണൻ നമുക്ക് അർജ്ജുനനിലൂടെ പറഞ്ഞു തരുന്നത്